ഹലോ ഹലോ നമസ്കാരം കൃഷ്ണൻ കുട്ടി സാറല്ലേ സാറേ ഞാൻ സുധീഷാണ് ആ എനിക്ക് വയസ്സ് ഇരുപത്തെട്ട് സാറേ ഇത് പനിയായിട്ട് മൂന്ന് ദിവസമായി സാറേ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം മേലും കൈയ്യുമൊക്കെ വേദന അങ്ങനെയ്ണ്ട് സാറേ മേലും കൈയ്യും ഒക്കെ ഭയങ്കര വേദന സാറേ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പണിക്കു പോകാൻ ഒന്നും പറ്റുന്നില്ല ആ അതേ സാറേ അതേ ഞാൻ പുറത്തൊക്കെ പോയിരുന്നു അപ്പോൾ നാട്ടിൽ ഉത്സവങ്ങളായിട്ട് രാത്രിയൊക്കെ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് ദിവസം അവിടെ തന്നെ ആയിരുന്നു നേരെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല അതിൻ്റെ ഇതായിട്ടുണ്ടാകുമോ അതെ സാർ

അതേ അത് മോൻ കൊണ്ട് വന്ന മരുന്നെടുത്തു മെഡിക്കൽ നിന്ന് ഒരു മരുന്നെടുത്തു സാറേ ഹോസ്പിറ്റല് പോയില്ല അതേ തുടങ്ങിയിട്ട് ഇപ്പം മൂന്നു ദിവസം കഴിഞ്ഞു സാറേ മൂന്ന് ദിവസം കഴിഞ്ഞു ഭയങ്കര ക്ഷീണം ഇപ്പം പണിക്കൊക്കെ പോകാൻ ആ സാറ് എപ്പോൾ ഉണ്ടാവും സാറ് സമയമൊന്ന് പറയാമോ സാറേ അതെയോ നാളെ ഞായറാഴ്ച്ച ഉണ്ടാകുമോ സാറേ ഞായറാഴ്ച്ച അഞ്ച് മണി വീട്ടിൽ അഞ്ച് മണിക്ക് ശേഷം ഉണ്ടാവുമോ സാറേ ആ അപ്പോൾ ടോക്കന് കാര്യങ്ങൾ ഉണ്ടാവുമോ സാറേ തിരക്കുണ്ടാവുമോ അപ്പോൾ വരുമ്പോൾ അല്ല ടോക്കൺ എടുക്കേണ്ടി വരുമോ സാറേ മുമ്പേ ആ അതേ വരാം ആ കുറച്ച് ഇത് ചുമയും ഉണ്ട് സാറേ അതിൻ്റെ കൂടെ ചുമയുണ്ട് ഭയങ്കരം അതേ സാറേ ഓക്കെ